നിങ്ങളുടെ ജോലി സംബന്ധമായ ഒരു ലഘു വിവരണം തരാമോ ഞാൻ ഒരു മഹിളാ പ്രധാനി ഏജൻറ്റാണ് ലഘു സമ്പാദ്യ പദ്ധതി എന്ന് എന്നും ഇതിനെ പറയും ഇത് ഓരോ വീടുകൾ തോറും ചെന്ന് ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് കൊണ്ട് വന്ന് പോസ്റ്റ് ഓഫീസിൽ അടക്കുക എന്നതാണ് ഈ ജോലിയുടെ സ്വഭാവം ഈ ജോലി സ്വഭാവം അങ്ങനെയാണെങ്കിലും പൈസ വാങ്ങിച്ചിട്ട് അതിൻ്റെ കമ്പ്യൂട്ടറിൽ അതിൻ്റെ ലിസ്റ്റ് എടുത്ത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് പോയി ആ ലിസ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ അവർ ഡൗൺ ലോഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇത് അവരുടെ ബുക്കിൽ പോസ്റ്റ് ചെയ്ത അടയ്ക്ക പൈസ ആകുന്നത് അതായത് നല്ല ഒരു ജോലിയാണ് ആ ജോലിയിൽ ഞാൻ സംതൃപ്തയാണ് ജോലിയിൽ ജോലിയ് നല്ല ഉത്തരവാദിത്വപ്പെട്ട ഒരു ജോലിയാണ് കേന്ദ്രസർക്കാരിൻ്റെ ഒരു ജോലിയാണ് പ്രിൻറ്റ് എടുക്കുക എന്ന് എന്നുള്ളതും പൈസ അടക്കുക എന്നുള്ളതും നി നിസ്സാരമായ ജോ കാര്യമല്ല അത് നല്ലപോലെ നമുക്ക് എക്സ്പെർട്ടായിരിക്കണം എന്നാലേ നാം അത് തെറ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുകയുള്ളു പിന്നെ കളക്ഷനും പോകുക എന്ന് പറഞ്ഞ കളക്ഷൻ പോയി പൈസ വാങ്ങിക്കണമല്ലോ ഓരോ വീടുകളിൽ നിന്നും കളക്ഷന് പോകുക എന്നുള്ളത് ഒരു ജോ ഉത്തരവാദിത്വപ്പെട്ട ഒരു ജോലിയാണ് അതേ സമയം എടുക്കും രാവിലെ കളക്ഷൻ ഒരുങ്ങി ജോലിക്കാർ പോകുന്ന പോലെ തന്നെ പോയി കളക്ഷൻ എടുത്ത് കൊണ്ടു വന്ന് വീട്ടിൽ കൊണ്ടു വന്നിട്ട് അത് അവരവരുടെ ബുക്കുകളിൽ പോസ്റ്റ് ചെയ്ത് അടച്ച് അവരുടെ പൈസ അവരുടെ അക്കൗണ്ടിൽ കേറിയിട്ടുണ്ട് എന്ന് ബോധ്യം വന്നെങ്കിലെ അത് ആവുകയുള്ളൂ ബോധ്യം വന്നെങ്കിലേ അത് ആക്റ്റീവ് ആവുകയുള്ളൂ